ഇന്ത്യയുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ ഭൂപ്രദേശത്തെക്കുറിച്ച് ബൈക്കിങ്ങിലൂടെ എങ്ങനെയാണ് അറിയാൻ സാധിക്കുക അതെങ്ങനെയാണതിൽ സ്വാധീനം ചെലത്തുക എന്നു ചോദിക്കുന്നതിനോടുള്ള എൻ്റെ മറുപടി ഇന്ത്യയുടെ സംസ്കാരവും ഭൂപ്രദേശശാസ്ത്രവും ചെയ്യുന്നതിനുള്ള മികച്ച ഒരു മാർഗ്ഗമാണ് അത് അറിയുന്നതിനോടുള്ള മികച്ച ഒരു മാർഗ്ഗമാണ് ബൈക്കിംഗ് ഇത് നല്ലൊരു വ്യായാമം മാത്രമല്ല നമ്മുടെ നാടിനെ നാടിനെ അടുത്തറിയാനും കൂടുതൽ ബന്ധങ്ങൾ പുലർത്തുവാനും ഇത് സഹായകരമായിരിക്കും ഗ്രാമങ്ങളിലൂടെയും നമ്മുടെ പ്രദേശങ്ങളിലൂടെയും സൈക്കിൾ ചവിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉത്സാഹത്തിൻ്റെ പത്തു മടങ്ങ് നമുക്കൊരു ബൈക്ക് ഓടിച്ച് ഒരു യാത്ര പോകുമ്പോൾ ലഭിക്കുന്നു പുതിയ സമൂഹത്തേയും ഒരു വ്യത്യസ്ത വ്യക്തികളേയും അടുത്തറിയാനും മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കും പുരാതനമായ സ്ഥലങ്ങൾ ഇവയെല്ലാം ഇന്ത്യയുടെ സാംസ്കാരിക പണ്ടുകാലത്തൊരു നേർക്കാഴ്ച്ചയായിരുന്നെന്ന് തന്നെ പറയാം നമുക്ക് പുതിയ ഭക്ഷണ പാനീയങ്ങൾ ട്രൈ ചെയ്യാൻ സാധിക്കും പുതിയ ഭാഷകൾ അറിയാൻ സാധിക്കും അതുമായി ഇടകലർന്ന് സംസാരിക്കാനും സാധിക്കും കൂടാതെ നമ്മുടെ പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് പ്രത്യേക തരത്തിലുള്ളൊരു അനുഭൂതി തന്നെയായിരിക്കും ലഭിക്കുന്നത് ബൈക്കിങ്ങിലൂടെ നമ്മൾ ലോകത്തെ തന്നെ അറിയുകയാണ് മഞ്ഞുമൂടിയ ഹിമാലയം പോലെ മഞ്ഞുമൂടിയ ഹിമാലയങ്ങളിലൂടെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതി ആയിരിക്കും ലഭിക്കുന്നത് ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു സമൂഹം നമ്മുടെ സമൂഹത്തിലൂടെ ബന്ധപ്പെടാനും അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും പരമ്പരാഗത കൃഷി രീതികൾ കാണാനും കൂടാതെ അതു പഠിക്കാനും കഴിയുന്ന ഗ്രാമീണ ഗ്രാമങ്ങൾ നിങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുന്നു ഇന്ത്യയിൽ ബൈക്ക് ഓടിക്കുന്നത് കാഴ്ചകൾ കാണുക മാത്രമല്ല രാജ്യത്തിൻ്റെ ഭംഗി അനുഭവിക്കുക കൂടിയാണ് ഗ്രാമങ്ങളിലും സിറ്റികളിലും നിങ്ങൾ ബൈക്ക് ഓടിച്ചുപോകുമ്പോൾ അവിടെ പുഞ്ചിരിയോടെയും തുറന്ന മനസ്സോടെയും സ്നേഹത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ഒരുപാട് പേരുണ്ടാകും നിങ്ങളുടെ ജീവിത കഥകൾ പങ്കിടാനും നിങ്ങളുടെ പാരമ്പര്യങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങളടെ ആചാരങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ഒരു പ്രാദേശിക ആഘോഷത്തിലോ ഉത്സവത്തിലോ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിച്ചേക്കാം അങ്ങനെ ഒരുപാട് മികച്ച മാർഗ്ഗങ്ങൾ ബൈക്കിങ്ങിലൂടെ സാധിക്കുന്നു ലോകത്തെ അറിയാനായി